നമ്മള് പൊതുവെ സാധനങ്ങൾ വാങ്ങിക്കഴിയുമ്പോൾ അതു നല്ലതല്ല അതിനു മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റിക്കഴിയുമ്പോൾ നമ്മള് തൊട്ടടുത്തൊരു കടയിൽ നിന്നും അല്ലെങ്കില് നമ്മുടെ ടൗണിൽനിന്നു നമ്മുടെ അടുത്ത് സ്ഥലങ്ങളിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ അതു തിരിച്ചുകൊടുക്കാനും ചിലപ്പോഴൊക്കെ അതു കടക്കാര് പ്രശ്നം ഉണ്ടാക്കാം പലപ്പോഴും അതു കടക്കാര് അതു തിരിച്ചെടുക്കാനും നമുക്കതിൽ നിന്നൊരു സന്തോഷം കിട്ടാറുമുണ്ട് കാരണം ഒരു ബുദ്ധിമുട്ടായ കാര്യം സ്വന്തമായിട്ട് എടുത്തില്ലല്ലോ എന്നുള്ളൊരു സന്തോഷം പക്ഷെ ചില സമയത്ത് നമ്മള് ഓൺലൈനായിട്ട് ഫ്ലിപ്കാർട്ടിൽ നിന്നോ മറ്റോ സാധനങ്ങൾ വാങ്ങിയതിനു ശേഷം ചിലപ്പോള് നമ്മുടെ വിലകുറഞ്ഞ സാധനങ്ങളായിരിക്കും വാങ്ങുന്നത് അതിൻ്റെ എന്തെങ്കിലും പൊട്ടിയതിന് ശേഷമോ മറ്റോ ഒക്കെ ബുദ്ധിമുട്ടുണ്ടാവാൻ ഉണ്ടാവാറുണ്ട് ഉദാഹരണത്തിനു പറയുകയാണെങ്കിൽ ഞാനൊരിക്കൽ ഒരു ഫോൺ ഓർഡർ ചെയ്തിരുന്നു അത് ഒരു ചൈനീസ് കമ്പനിയ കേക്കായി എന്നായിരുന്നു ആ കമ്പനിയുടെ പേര് പിന്നീട് ആ ഫോണ് ഞാൻ ഓർഡര് ചെയ്ത് അത് ഉപയോഗം തുടങ്ങിയതിനു ശേഷം അതില് വാട്സാപ്പ് ഉപയോഗിക്കാനും മറ്റ് ഒരു കാര്യങ്ങളും ചെയ്യാൻ സാധിക്കാത്ത രീതിയിൽ വളരെ മോശമായൊരു ഫോണായിരുന്നു അത് പക്ഷേ അതിൻ്റെ റിവ്യൂവും മറ്റു കാര്യങ്ങളും നോക്കിക്കൊണ്ട് അത് ഓർഡർ ചെയ്തതിനുശേഷം അതു തിരിച്ചുകൊടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ എൻ്റെ പൈസ പോയി എന്നൊരു ദുഃഖത്തിൽ ഞാന് ഒരുപാടു കാലം ചിലവഴിച്ചു പിന്നീട് കുറച്ചു നാളുകൾക്ക് ഓൺലൈൻ ഉപയോഗം അല്ലെങ്കിൽ ഓൺലൈൻ ഷോപ്പിങ്ങെന്നതു തന്നെ മാറ്റിവയ്ക്കേണ്ട സാഹചര്യം ഉണ്ടായി അത്തരത്തിൽ വളരെ മോശമായിരുന്നു ആ ഫോൺ അതിലാകെ ഉപയോഗിക്കാൻ സാധിച്ചിരുന്നത് അതിലാദ്യമേ ഉണ്ടായിരുന്ന ഫേസ്ബുക്ക് ലൈറ്റ് മാത്രമായിരുന്നു